ആ ഹലോ ആ ഒരു പിങ്ക് കളർ ആണോ തുണി ഇരിക്കുന്നത് കണ്ടായിരുന്നേ ആ ലൈനിങ് എടുക്കാം ഇതിൻ്റെ കൂടെയിരിക്കുന്ന ഈ അളവുതുണിക്ക് തന്നെ തയ്ച്ചാൽ മതിയോ ചുരിദാർ ആ അംബ്രല്ല കട്ട് അല്ലേ ആ ഇറക്കം ഒക്കെ ഇതുതന്നെ മതിയോ ആ ഈ കൈ എങ്ങനെ ഈ സാദാ കൈ ആണോ അതോ പഫ് പഫ് സ്ലീവ് വേണോ ത്രീ ഫോർത്ത് അല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ ഇത് എന്നത്തേക്ക് വേണ്ടതായിരുന്നു സൺഡേ അല്ലേ സൺഡേ വൈകിട്ടത്തേക്ക് മതിയോ അതോ ആ ഓക്കേ അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രത്യേകിച്ച് വർക്ക് ഒക്കെ ചെയ്യണോ വല്ല എന്തെങ്കിലും ആ ഓക്കേ ഓക്കേ സിബ്ബോ അങ്ങനെ എന്തെങ്കിലും വേണോ അതോ പ്രിൻസസ് കട്ട് ആണോ എങ്ങനെ ആ ഓക്കെ ഓക്കെ ആ അപ്പം ഇത് തയ്ക്കുന്നതിൻ്റെ തയ്യൽക്കൂലി അറുനൂറ് രൂപയാണേ ആ ഇതിപ്പം കഴിഞ്ഞിടക്ക് ഞങ്ങൾ മീറ്റിങ്ങ് ഒക്കെ കൂടി എല്ലാത്തിനൊക്കെ വിലയൊക്കെ കൂട്ടിയേ എല്ലാ എല്ലാ തുണിയും തയ്ക്കുന്നതിന് വില കൂട്ടിയായിരുന്നു ആ ആ അതായിരിക്കും അറിയാഞ്ഞേ മ് ആഹാ ആ ചിലർ ഈ നമ്മുടെ ഈ തയ്യൽ യൂണിറ്റിലൊന്നും ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ കുറച്ചുകൊടുക്കും പക്ഷേ നമ്മൾ ഈ യൂണിയനിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കാ വിലയ്ക്കേ കൊടുക്കാൻ പറ്റുള്ളേ മ് ആ അപ്പം സൺഡേ വരുമ്പം എന്നാൽ വിളിച്ചിട്ട് വന്നാൽ മതിയേ വൈകിട്ടത്തേക്കേ ആ അത് ഞാൻ എടുത്തിട്ടെന്നാൽ ഞാൻ എന്നെ എന്തായാലും ഒന്ന് സൺഡേ രാവിലെ വിളിക്ക് അന്നേരം ഞാൻ ലൈനിങിൻ്റെ ഇതെല്ലാം കൂടെ ഞാൻ എന്നാൽ പറയാം ആ ആ ഓക്കെ ഓക്കെ എന്നാൽ അതൊക്കെ നോക്കി തയ്ക്കാം അപ്പം ഇയാൾ നേരിട്ട് വന്നാണോ വാങ്ങിക്കുന്നത് അതോ ആരെയെങ്കിലും പറഞ്ഞുവിട്ടാണോ ആ ആ ഓക്കെ ഓക്കെ ആ ആ എങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നേരിട്ട് വന്നാൽ മതി അപ്പം ഇട്ടും നോക്കാം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വരുത്തുകയും ചെയ്യാമല്ലോ ആ ശരി ശരി ആ ഓക്കെ ശരി